ഞാനിപ്പോൾ കണ്ടതിൽ വെച്ച് ഇപ്പോൾ നമ്മുടെ സ്ഥലത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സൂര്യ അസ്തമയം ഉദയം എന്ന് ഒക്കെ പറയുമ്പോൾ കൂടുതൽ നമ്മൾ വയനാട്ടിന്ന് കണ്ടുവരുന്നത് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്പറയിലെ ചെമ്പറ കോട്ടെ നമ്മളെ കുർബാന കോട്ടയിലുള്ള വ്യൂ ആണ് കാരണം അവിടെ സൺ സെറ്റ് ഒക്കെ കാണാൻ അടിപൊളിയാണ് അവിടെ വ്യൂവും കാര്യങ്ങളൊക്കെ എന്താ പറയാ നല്ല രസമാണ് കാണാൻ പിന്നെ കൂടുതലും നമ്മൾ അങ്ങനെ സൺ സെറ്റും ഇത് സൂര്യാസ്തമയവും ഒക്കെ കാണണമെങ്കിൽ കൂടുതലായിട്ടും നമ്മൾ പൂവാറുള്ളത് കോഴിക്കോട് ഒക്കെയാണ് അവിടെ ബീച്ചിലെ സൺ സെറ്റ് ഒക്കെ കാണാൻ അടിപൊളിയാണ് കൂടുതലും നമ്മൾ കാണാൻ കോഴിക്കോട് ഭാഗത്തൊക്കെ പോയിട്ട് ബീച്ചിൻ്റെ അവിടെയുള്ള വ്യൂ ഒക്കെയാണ് കൂടുതലും കാണാറുള്ളത് എന്നാലും പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ അടുത്തൊക്കെ ഉള്ളതെന്ന് പറയുമ്പോൾ കുർബാന കോട്ട തന്നെയാണ് അവിടത്തെ സൂര്യാസ്തമയം ഉദയം സൂര്യോദയം ഒക്കെ കാണാൻ ഒരുപാട് പേർ വരുന്നുണ്ട് മേഘങ്ങളും കാര്യങ്ങളും ഒക്കെ താഴേക്ക് ഒക്കെ വന്ന് നല്ല രസമുള്ള വ്യുവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കൊണ്ട് തന്നെ കൂടുതലും ആൾക്കാർ അത് ആസ്വദിക്കാനൊക്കെയാണ് അങ്ങോട്ട് പോകാറുള്ളത് ഇതൊക്കെയാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്